സർ എൻ്റെ വീട് ഇവിടെ കോഴഞ്ചേരിയിലാണ് എൻ്റെ ആധാർ കാർഡിന്റെയകത്ത് അഡ്രസ്സ് തിരുത്തനായിട്ട് ഞാന് ഒരപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഇപ്പോള് ഒരു ഒന്നര മാസത്തോളമായി എൻ്റെ ആധാർ കാർഡ് നമ്പറെന്ന് പറയുന്നത് മൂന്ന് മൂന്ന് നാല് നാല് നാല് അഞ്ച് എട്ട് ഏഴ് ഏഴ് അഞ്ച് അഞ്ച് മൂന്നാണ് അപ്പോള് അതിനകത്തെ അഡ്രസ്സ് തിരുത്തനായിരുന്നു ഞാൻ അപേക്ഷിച്ചത് പക്ഷെ ഇപ്പോള് ഇത്രയും നാള് കഴിഞ്ഞിട്ടും അതിനെപ്പറ്റി ഒരു അപ്ഡേറ്റും എനിക്കിതുവരെ കിട്ടിയിട്ടില്ല മെസ്സേജായിട്ടോ അല്ലെങ്കില് ഇമെയില് വഴിയോ അങ്ങനെ ഒരു മെസ്സേജും ഇതുവരെ ലബിച്ചിട്ടില്ല അപ്പോള് അതിനായിട്ട് എന്നാ ചെയ്യണ്ടേന്നൊരു ഒരു നിർദേശം തരുമായിരുന്നെങ്കില് നല്ലതായിരുന്നു എനിക്ക് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കി ഉള്ള കുറേ കാര്യങ്ങള് അതായത് ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്കിയ്യാനും ഗ്യാസ് ബുക്കിങ്ങിന് ലിങ്കിയ്യാനുമൊക്കെ ആ ഇപ്പോള് ഓരോന്ന് വന്നിട്ടുണ്ടല്ലോ മസ്റ്ററിങ് ചെയ്യാനൊക്കെ അങ്ങനൊക്കെ അപ്പോള് അതിൻ്റെ ആവശ്യത്തിനായിട്ട് ആധാർ കാർഡ് ഉണ്ടായാലെ പറ്റത്തുള്ളു അപ്പോള് അതിൻ്റെ അപ്ഡേറ്റ് എന്തേലും ലഭിക്കാൻ എന്താണു വഴിയെന്നൊന്ന് പറഞ്ഞുതരാമോ